ഞാൻ പഠിക്കുന്ന കാലത്താണ് ആദ്യമായി പാട്ടു പഠിക്കാൻ ആഗ്രഹമുണ്ടായത് ഞങ്ങളുടെ സ്കൂളിൽ ഒരു ടീച്ചറുണ്ടായിരുന്നു ടീച്ചറിൻ്റെ പേര് സരസ്വതി ടീച്ചർ എന്നായിരുന്നു സരസ്വതി ടീച്ചറിൻ്റെ കീഴിലാണ് ആദ്യമായി ഞാൻ പാടുവാൻ പഠിച്ചത് ടീച്ചറ്

പട്ടത്തി സ്ത്രീയാണ് ടീച്ചർ നല്ല രീതിയിൽ തന്നെ നമ്മളെ പാട്ടു പഠിപ്പിക്കാറുണ്ട് ഒപ്പം തന്നെ പാട്ടിനോട് ഇച്ചിരി താല്പര്യമുള്ള കുട്ടികളെ ടീച്ചർ പാട്ട് പഠിക്കുന്ന അതായത് സംഗീത ക്ലാസ്സിനു ശേഷം മാറ്റിയിരുത്തി അവരെ പ്രത്യേകം പാട്ടു പഠിപ്പിക്കാറുണ്ട് അങ്ങനെയാണ് എന്നെയും ടീച്ചർ ആദ്യമായി പാട്ടു പഠിപ്പിച്ചത് ടീച്ചറിൻ്റെ കീഴിലാണ് ഞാൻ ആദ്യമായി പാട്ടു പഠിക്കാൻ തുടങ്ങിയത് നല്ല രീതിയിൽ തന്നെ ടീച്ചറ് ഞങ്ങളെ പാട്ടു പഠിപ്പിക്കാറുണ്ട് ടീച്ചറ് എല്ലാ ഭാഷയിലും മിക്ക ഭാഷയിലുള്ള പാട്ടുകളും ഞങ്ങളെ പഠിപ്പിക്കാറുണ്ട് പക്ഷേ നമുക്ക് ഭാഷ അധികം അറിയാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾക്കിച്ചിരി പാടുപെടും എങ്കിലും ടീച്ചർ നല്ല രീതിയിൽ തന്നെ ഞങ്ങളെ പഠിപ്പിക്കാറുണ്ട് ടീച്ചറ് നന്നായി പാട്ടുപാടാറുണ്ട് കലോത്സവങ്ങളിലും മറ്റു സംസ്ഥാന പരിപാടികളിലും ഞങ്ങളെ പങ്കെടുപ്പിക്കാറുണ്ട് ടീച്ചറ് ടീച്ചറ് നല്ല ഒരു പാട്ടുകാരിയാണ് ടീച്ചർ സിനിമയിലും മറ്റു കലാപരിപാടികളിലും നാടകങ്ങളിലും ഒക്കെ പിന്നണി ഗായികയായിട്ട് പാടാൻ പോകാറുണ്ട് ടീച്ചറിൻ്റെ സ്വദേശം മാങ്കാമ്പ് എന്നു പറയുന്ന കുട്ടനാടുള്ള ഒരു സ്ഥലത്താണ് ടീച്ചറിൻ്റെ പ്രദേശം നല്ല രീതിയിൽ കുട്ടികളോട് ബിഹേവ് ചെയ്യുകയും കുട്ടികളെ എല്ലാം നല്ല രീതിയിൽ തന്നെ പാട്ടു പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഒരു ടീച്ചറാണ് ഞങ്ങളുടെ സരസ്വതി ടീച്ചറ് സരസ്വതി ടീച്ചറിൻ്റെ കീഴിൽ അനേകം കുട്ടികൾ പാട്ടു പഠിക്കാറുണ്ട് ടീച്ചറിൻ്റെ വീട്ടിൽ തന്നെ ഒരു പാട്ടു പഠിക്കാനായിട്ട് ഒരു സ്കൂൾ സ്ഥാപിച്ചിട്ടുണ്ട് ആ സ്കൂളിൽ ഒത്തിരി കുട്ടികൾ ഒത്തിരി കുട്ടികൾ പാട്ടു പഠിക്കാറുണ്ട് നല്ല രീതിയിൽ തന്നെ പാട്ടു പഠിപ്പിച്ച് ഈ കുട്ടികളെ പലസ്ഥലങ്ങളിലും പരിപാടിയിൽ പങ്കെടുപ്പിച്ച് അവരെ വിജയത്തിലേക്ക് എത്തിക്കാറുണ്ട് ആ ശ്രീ ടീച്ചറിൻ്റെ കീഴിൽ പാട്ടു പഠിക്കുന്ന കുട്ടികൾ നല്ല രീതിയിൽ തന്നെ പാട്ടു പഠിക്കുകയും ഉന്നത വിജയങ്ങളിൽ ചെന്നെത്താറുമുണ്ട് അതുകൊണ്ടുതന്നെ ടീച്ചറിൻ്റെ കീഴിൽ അനേകം കുട്ടികൾ പഠിക്കാറുണ്ട് എല്ലാ മാതാപിതാക്കൾക്കും വളരെ ഇഷ്ടമാണ് ടീച്ചറിനെ എല്ലാവരോടും നല്ല രീതിയിൽ തന്നെ ബിഹേവ് ചെയ്യുവാനുള്ള കഴിവും ടീച്ചറിനുണ്ട് അതുകൊണ്ട് ടീച്ചറിൻ്റെ അടുക്കൽ ഒത്തിരി കുട്ടികളെ ആകർഷിക്കാറുണ്ട് നല്ല രീതിയിൽ തന്നെ പാട്ടുകൾ പാടി മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാനും നല്ല രീതിയിൽ പാട്ടുകൾ പാടി എല്ലാവരെയും കേൾപ്പിക്കുവാനും അവർ നല്ല രീതിയിൽ തന്നെ അവരെല്ലാ പാട്ടുകളും പാടി മറ്റുള്ളവരെ മറ്റുള്ളവരുടെ മനസ്സ് അലിയിപ്പിക്കത്തക്ക രീതിയിലുള്ള പാട്ടുകൾ പാടി കേൾപ്പിക്കുവാനും അതുപോലെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനുള്ള കഴിവ് എങ്ങനെ നന്നായിട്ട് പാട്ടു പാടണം എങ്ങനെ പഠിക്കണം പാട്ടിന് എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമാണ് അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരേയും എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കി ഞങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട് ഞങ്ങളുടെ സരസ്വതി ടീച്ചറ് സരസ്വതി ടീച്ചറിൻ്റെ ജീവിതകാലത്തിൽ ടീച്ചറിൻ്റെ ജീവിത്തിൽ ഏറ്റവും ഒരു കാര്യം പാട്ടു പഠിപ്പിക്കുക എന്നുള്ളതാണ് ടീച്ചറിൻ്റെ പാട്ട് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ടീച്ചർ ചെയ്യാറുള്ളു പാട്ടാണോ ടീച്ചറിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഉത്തമമായ കാര്യം അത് ടീച്ചർ എപ്പോഴും ഞങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാറുണ്ട്